ഇന്ന് പ്രകൃതിയിൽ നിന്നു കിട്ടുന്ന എല്ലാ വെള്ളങ്ങളും കുടി വെള്ളം ആണെന്നു പറയാൻ പറ്റില്ല വെള്ളം നമുക്ക് കേരളത്തിലേറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നാൽ കേരളത്തിൽ കിട്ടുന്ന എല്ലാ വെള്ളങ്ങളും മനുഷ്യ ജീവന് കുടിക്കുവാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കയില്ല വെള്ളം കിട്ടുന്ന അതിലുള്ള മിനറലുകൾ അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള മറ്റു വകകളൊക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നതിനാൽ മനുഷ്യ ജീവന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള വെള്ളങ്ങളാണ് പലയിടത്തും കിട്ടാറുള്ളത് ഈ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ വീടുകളിൽ ചെയ്യാവുന്ന രീതികൾ ഉണ്ട് ഞാനെൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിൽ വെള്ളം അരിച്ചെടുക്കുവാൻ ശുദ്ധീകരിച്ച് എടുക്കാൻ വേണ്ടിയുള്ള രീതികൾ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് രീതികളാണ് ചെയ്യുക ഒന്ന് പൈപ്പ് വഴിയുള്ള ശുദ്ധീകരണമാണ് വാട്ടർ എട്ട് ഇഞ്ചിൻ്റെ പി വി സി പൈപ്പിൽ നാല് അല അറകളായിട്ട് ഉണ്ട് നാല് സെക്ഷനായിട്ട് വെച്ച് ഉണ്ടാക്കിയതിനു ശേഷം

ചെറിയ അതിനേക്കാൾ ചെറിയ മെറ്റ് ചെറിയ മണൽ നല്ല അരിച്ച ശുദ്ധിയുള്ള മണൽ പിന്നെ നമ്മുടെ ചിരട്ടക്കരി ചിരട്ടയായ കരി ഒരു സെക്ഷൻ്റെ നന്നായിട്ട് ഒരറയിൽ ഒരു ഭാഗത്ത് ചിരട്ടക്കരി അങ്ങനെ അതിനു ശേഷം വീണ്ടും ചെറിയ പാറകൾ അങ്ങനെ നാലു സെക്ഷനായി വലിയ പാറ ചെറിയ പാറ പിന്നേ പിന്നെ മണൽ ചിരട്ടക്കരി ഇത് ഉപയോഗിച്ച് നാല് അറകളിലായിട്ട് ഈ അറകളിലൂടെ വെള്ളം കടത്തി വിട്ടു കഴിയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ കുടിക്കുവാനുള്ള ആവശ്യമായിട്ടുള്ള നല്ല ശുദ്ധ വെള്ളം കിട്ടുന്നുണ്ട്